ഹലോ ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോവാൻ വേണ്ടി ഒരു നാല് പേർ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാൻവേണ്ടി ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഡ്രൈവറ് ആവശ്യമില്ല അപ്പം അതായത് മൊത്തം ഒരു മുന്നൂറ് കിലോമീറ്ററ് അടുത്ത് ഉണ്ടാവും മൂന്ന് ദിവസത്തേക്കായിട്ട് അപ്പം കിലോമീറ്റർ ചാർജ് എത്രയാണെന്ന് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു വയനാട്ടിലേക്ക് പോവാനാണ് മൊത്തം മുന്നൂറ് കിലോമീറ്ററുണ്ടാവും അപ്പം മൊത്തത്തിൽ ചാർജ് വാടക എത്രയാണെന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു